ഒരു മനുഷ്യ പ്രതിമയെ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ എനിക്ക് വളരെയേറെ വെല്ലുവിളികൾ അനുഭവിക്കേണ്ടി വന്നു ഈ ഇതിനെ പ്രതിമേനെ ഉണ്ടാക്കാനുള്ള കളിമണ്ണ് ശേഖരിക്കുക എന്നതായിരുന്നു ആദ്യത്തെ ബുദ്ധിമുട്ട് ഉള്ള കാര്യം എന്നു പറഞ്ഞത് അതിന് ഞാൻ വയലുകളിൽ അന്വേഷിച്ചു പോയി കളിമണ്ണ് ശേഖരിച്ച് കൊണ്ടു വന്ന് മനുഷ്യ പ്രതിമയെ ഉണ്ടാക്കുകയാണ് ചെയ്തത് ഉണ്ടാക്കിയ ശേഷം എനിക്ക് വളരെയേറെ സന്തോഷം തോന്നിയിരുന്നു ആ പ്രതിമയെ കണ്ട് അതിൻ്റെ കണ്ണും മൂക്കും ഒക്കെ ഒരു മനുഷ്യ പ്രതിമയെ ആക്കാൻ ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ആക്കി മാറ്റിയത്